ബാല്യകാല സ്മരണ ഞാൻ നോക്കണേ പറയുമ്പഴേ നമുക്ക് എൻ്റെ ഞാന് സത്യം പറഞ്ഞാൽ ജനിച്ചതും വളർന്നതും പഠന കാലഘട്ടം ഒക്കെ പാലക്കാട് ജില്ലയിൽ തന്നെ പക്ഷെ അതില് ഇപ്പൊൾ നമ്മള് ഈ വെക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൊൾ ഞാൻ നേരെ അച്ഛൻ്റെ നാട്ടിക്ക് പോകും അവിടേന്ന് പറയുമ്പോൾ ആ സമയത്ത് അതായത് പ്ലസ് ടു കാലഘട്ടം വരെയൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളും കൂടുതലായിട്ട് പാലക്കാട് ജില്ലയിലേകാട്ടിലും എനിക്ക് കൂടുതലായിട്ടുള്ളത് എനിക്ക് തൃശ്ശൂർ ജില്ലയിലാണ് സംഭവം നമുക്ക് സത്യംപറഞ്ഞിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ കൂട്ടുകാരായിട്ടോ അല്ലങ്കിൽ പിള്ളേരായിട്ടോ എനിക്കങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തീരെ കുറവാന്ന് തന്നെ പറയാം അവിടെയിരുന്നു എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം അവിടുത്തെ തൃശ്ശൂരിലെ ആൾക്കാര് അവിടുത്തെ വീട്ടുകാരും അവിടുത്തെ കൂട്ടുകാരക്കേയിരുന്നു ഇപ്പ ഇവിടെ തീരെ എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നാമത് ഇവിടെ നിക്കില്ല മെയ്നായിട്ട് അവിടെ അവിടുത്തെ കളി ഇപ്പൊൾ ഇവിടുന്ന് ഒരു ദിവസം കിട്ടിയാ പോലും ഞങ്ങള് ഗ്യാപ്പ് ഇപ്പൊ അങ്ങനെ അവിടേക്ക് പോകാറാണ് മിക്കവാറും പതിവ് അപ്പം ആ സമയങ്ങളില് ഞാന് കുറച്ചും കൂടെ എന്താ പറയുക അവടെ ആക്ടിവായിരുന്നു അവിടുത്തെ കളിയും കാര്യങ്ങളിലും അവിടുത്തെ ആൽക്കാരായിട്ടും നല്ല ബന്ധവും കാര്യങ്ങളായിട്ട് ഇവിടുത്തെ അപ്പം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ബന്ധം കുറവും അങ്ങനത്തെ ഇതായിരുന്നു അതിലെനിക്ക് നല്ല അത് പറഞ്ഞാൽ അവിടെ പുഴയില് മറ്റേ മീൻപിടിക്കാൻ പോകലും പിന്നെന്താ പറയുക വേല പൂരം അങ്ങനത്തെ എൻ്റെ നാട്ടിലെന്ന് പറയുമ്പോൾ കുതിര കുതിരകാര്യാണ് അപ്പൊൾ അവിടത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൃത്രിമമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ രൂപങ്ങളൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി പരിപാടിയാണ് അപ്പോ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് സാധാരണ മിക്ക ദിവസം അതായത് നമ്മള് രണ്ട് ദിവസം മുമ്പ് നമ്മള് പന്തലും കാര്യങ്ങളും കെട്ടി പിന്നെ അതിൻ്റെ തുണിം മുണ്ടും കാര്യങ്ങളും അതിനനുസരിച്ച് ആ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് എന്താ പറയുക ഇപ്പൊൾ ഇന്ന് വേലയാന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ആണ് അതിൻ്റെ ഉണ്ടാക്കുക കുതിരേ ഉണ്ടാക്കുക അപ്പോൾ രാവിലെ അതിൻ്റെ സ്ഥിരം ആൾക്കാര് ആശാരിമാരും കാര്യങ്ങളൊക്കേണ്ട് അപ്പോ അവര് വന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം കാണാൻ നല്ല അതായത് അവിടെ ഉള്ളേല് വച്ച് ഏറ്റോം നല്ല വലിപ്പോം കാര്യങ്ങളൊക്കേള്ള കുതിര നമ്മുടെ കുതിര ആയിരിക്കും അതിനെ കെട്ടി ഉണ്ടാക്കണ കുതിര ഈ വൈക്കോലും പിന്നെ അത്യാവശ്യം അങ്ങനത്തെ പ്പെ എന്താ പറയുക തെർമ്മോക്കോള് അങ്ങനത്തെ സാധനങ്ങളക്കെ വച്ചിട്ട് നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഒള്ള സംഭവാണ് അതില് അതില് എന്താ മെയിൻന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് കുതിര എറിഞ്ഞ് മുകളില് പന്തല് പൊളിക്കുന്ന പരിപാടിയുണ്ട് അപ്പൊൾ കുറെ ദേശക്കാരുണ്ട് അപ്പൊൾ എല്ലാ ദേശക്കാരും വന്ന് അങ്ങനെ എറിഞ്ഞെറിഞെറിഞെറിഞ്ഞ് ടീമായിട്ട് അതായത് ഒരു ടീമിനു ഒരു മൂന്ന് പ്രാവശ്യം എറിയാം അങ്ങനെയുള്ള ഒരിതാണ് എന്നിട്ട് വീണ്ടും അമ്പലം വലം വച്ച് വരണം അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയാണ് അത് എനിക്ക് ഭയങ്കര ഇപ്പോഴും ഓർക്കാൻ ആ വേലേം പൂരോം വേറെ ഏത് വേല പോയാലും ആ ഒരു വേലേം പൂരോം എനിക്കെപ്പോഴും എന്താ പറയുക എപ്പോഴും ഓർക്കാൻ പറ്റിയ ഒരു സംഭവാണ്